നമ്മുടെ നാട്ടിലെ കർഷകര് ഇപ്പോൾ മാർക്കറ്റിലോട്ട് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാല് മെയിനായിട്ട് യാത്രയാണ് വാഹനങ്ങളിൽ ഇപ്പോൾ കൊണ്ട് വരുന്നതാണ് അതായത് ഇപ്പോൾ വല്ല ചക്കയോ പൂളക്കിഴങ്ങോ ചക്കര കിഴങ്ങോ അങ്ങനെ ഉള്ള സാധനങ്ങൾ ഒക്കെ ഇപ്പോൾ ഒര് കൊണ്ടു വരിക എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് വേണ്ടി ഒരു വണ്ടി വിളിക്കണം ഒരു പെട്ടി വണ്ടി വിളിക്കുക എന്നിട്ട് വേണം കൊണ്ട് വരാൻ അപ്പോൾ അതിൻ്റെ ചിലവ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതുപോലെ പിന്നെ ഇപ്പോൾ കർഷകരിപ്പോൾ പ്രായമായവരൊക്കെ ആയിരിക്കും കൂടുതലും കർഷ കൃഷി ചെയ്യുന്നവര് അപ്പോൾ അവർക്ക് ഈ സാധനം വണ്ടിയിൽ എടുത്ത് കയറ്റുക വണ്ടിയിൽ നിന്ന് ഇറക്കുക മുഴുവനും ചിലവായില്ല എന്ന് പറഞ്ഞ് അന്ന് വിറ്റ് പോയില്ല പറഞ്ഞ് വീണ്ടും അത് തിരിച്ച് വീണ്ടും വണ്ടിയിലോട്ട് കയറ്റി വീട്ടിലോട്ട് കൊണ്ട് വരണം അപ്പോൾ അതൊക്കെ അവരെ ബാധിക്കും അതുപോലെ ഇപ്പോൾ വണ്ടിക്ക് കൊടുക്കാൻ തന്നെ വണ്ടി ചാർജ് അതും ഇപ്പോൾ അവർക്ക് വിചാരിച്ച അത്ര വരുമാനം അന്ന് വിറ്റു പോയില്ല കിട്ടില്ല വില കുറവായിരുന്നു എന്ന് വെച്ച് അവരെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ലോഡിങ് വണ്ടിയിൽ കയറ്റും ഇറക്കും ചെയ്യാനുള്ള കാശ് അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് വരും പിന്നേ എന്ന് പറഞ്ഞാല് ക കാലാവസ്ഥ ഇപ്പോൾ മഴയൊക്കെ ഉള്ള ടൈമാണെങ്കിൽ അവർക്ക് കൊണ്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മഴയും ചളിയും ഒക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് ഒറ്റക്ക് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ സാധിക്കില്ല ഒരാളുടെ സഹായം ഇല്ലാണ്ട് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ എന്ന് പറയുന്നത് കർഷകർക്ക് നേരിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അവർക്ക് സമയവും കുറവായിരിക്കും ഇപ്പോ അല്ലെങ്കിൽ കൃഷിയിടത്തില് ഇതുപോലെ പണിയുണ്ടാകും അല്ലെങ്കിൽ വേറെ വല്ല ഫങ്ക്ഷൻ ഉണ്ടാകും ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസമേ ഉണ്ടാകുകയുള്ളു ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക അപ്പം അന്നേ ദിവസം അവർക്ക് വേറെ ഏന്തെങ്കിലും പരുപാടി ഉണ്ടെങ്കില് അതില് ഏർപ്പെടും അപ്പം ഇത് ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അവര് കൂടുതലും കിട്ടുന്ന വിലയ്ക്ക് വീട്ടിൽ നിന്ന് തന്നെ സ വിൽക്കാൻ നോക്കും ആർക്കെങ്കിലൊക്കെ അത്യാവിശ്യക്കാര് ഉണ്ടെങ്കിൽ നേരിട്ട് വീടുകളിൽ തന്നെ വിൽക്കും ഇല്ലാ പറഞ്ഞാൽ അവരുടെ ഒന്നിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ ഏജൻറ്റ്മാരെ കണ്ട് അവർക്ക് ഒന്നിച്ച് കൊടുക്കും അപ്പം അവർക്ക് വില കുറച്ച് കുറവായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ മാർക്കറ്റില് എന്ന് പറഞ്ഞാൽ പത്തു രൂപ അധികം കിട്ടുമായിരിക്കും ഈ ഏജൻറ്റ്മാരിൽ നേരിട്ട് കൊടുക്കുവാണെങ്കിൽ അവര് ഒരുമിച്ച് ഇത് കൊണ്ട് പോകും പക്ഷെ അത് ഒരു കണക്കിന് ഇവർക്ക് നഷ്ടമാണ് പക്ഷെ മറ്റുള്ള ചിലവുകൾ അപേ മറ്റുള്ള ചിലവുകളെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കൂ നല്ലതായിരിക്കും കാരണം അവർക്ക് അതിന് വേണ്ടി പണിയെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവിശ്യമില്ലലോ വണ്ടിയിൽ കയറ്റും ഇറക്കും കൊണ്ടുപോകും കൊണ്ടുവരും ആ ഒരു ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇവർക്ക് ഒഴിവായി കിട്ടും